ഇപ്പം മത്സ്യബന്ധനത്തിനൊക്കെ പോവുവാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും എന്താണ് പറയുക ഉപയോഗിക്കുന്ന ഉപകാരണങ്ങളൊന്നൊക്കെ പറഞ്ഞാൽ ചൂണ്ടയൊക്കെയാണ് ആ അപ്പം പണ്ടുള്ളവരൊക്കെ കൂടുതലും എന്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൈചൂണ്ട അങ്ങനത്തെ ഇതൊക്കെയാണ് അതുപയോഗിച്ചിട്ടാണ് അവർ ഇതാക്കിയിരുന്നത് പിന്നെ വലകളൊക്കെ എന്താണ് പറയുക ക്വാളിറ്റി ഉള്ള വലകളൊന്നും ആയിരുന്നില്ല അവർ സ്വന്തമായിട്ട് നെയ്ത് ഉണ്ടാക്കുന്ന വലയൊക്കെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പോഴത്തെ സമയം ഇന്നത്തെ ഒക്കെ ഒരു ക ഇത് പറയുവാണെങ്കിൽ ചൂണ്ടയിലൊക്കെ തന്നെ നല്ല നല്ല മാറ്റങ്ങൾ വന്നു ആ എന്താണ് പറയുക ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ചൂണ്ടകൾ ആ പിന്നെ എന്താണ് പറയുക ഇങ്ങനെ കൈ കൊണ്ട് കറക്കി ഒക്കെ എന്താണ് പറയുക ഈ നൂൽ ചുറ്റുന്നതൊക്കെ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ വലകളിലൊക്കെ തന്നെ എന്താണ് പറയുക മെഷീൻ ഉപയോഗിച്ചിട്ടൊക്കെ വലകൾ തുന്നുന്നത് അങ്ങനത്തെ ഇതൊക്കെ റെഡിമെയ്ഡ് ആയിട്ട് തന്നെ വലകളൊക്കെ ലഭിക്കാൻ തുടങ്ങി അതോടുകൂടി മത്സ്യബന്ധനത്തിനൊക്കെ ആൾക്കാർ കൂടുതലായിട്ട് പോവാനൊക്കെ തുടങ്ങി അതുപോലെ മത്സ്യബന്ധനത്തിൽ തന്നെ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനൊക്കെ ആൾകാർക്ക് സാധിച്ചു ഇപ്പോൾ അതുകൊണ്ടുതന്നെ എന്താണ് പറയുക എല്ലാവരും ഇപ്പോൾ മത്സ്യബന്ധനത്തിനൊക്കെയായിട്ട് പോവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും മത്സ്യബന്ധനം നടക്കുന്നുണ്ട് കാരണം കൊച്ചു കൊച്ചു പൂ എന്താണ് പറയുക തോടുകൾ മുതൽ വലിയ വലിയ പുഴകൾ അരുവികൾ അങ്ങനെ കായലുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരെ ഇപ്പോൾ ആൾക്കാർ പോയിട്ട് മീൻ പിടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്